എനിക്കേറ്റവും ഏറ്റവും ഇഷ്ട ഇഷ്ടപ്പെട്ട പത്രം ഏതെന്നു പറഞ്ഞാൽ മനോരമയാണ് എങ്കിലും ദീപിക ഇഷ്ടക്കുറവൊന്നുമില്ല ദീപിക എപ്പോഴും നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങൾ കൂടുതലുയർത്തിപ്പിടിച്ചു പ്രവർത്തിക്കുന്നൊരു പത്രസ്ഥാപനമാണ് അപ്പം കൂടുതൽ തീക്ഷണതയോടെയും പ്രവർത്തിക്കാനായിട്ടു നമ്മളുടെ സഭയുടെ കാര്യങ്ങളെല്ലാം കൂടുതലായി മറ്റുള്ളവരിലേക്കെത്തിക്കാൻ വേണ്ടി അവർ കൂടുതലായും ശ്രമിക്കുന്നുണ്ട് എന്നാൽ മനോരമ അവരുടെ പിന്നെ സഭയുടെ അവരുടെ സഭയുടെ കാര്യങ്ങൾ മാത്രമേ അവർ കൂടുതലായിട്ടിടുന്നുള്ളു അവർ കൂടുതൽ ഉയർത്തിപ്പിടിക്കാറുണ്ട് മറ്റു ദീപിക അതല്ല ദീപിക നന്നായി നമ്മുടെ സാ മതസ്ഥാപനങ്ങളെയും മറ്റു മതങ്ങളെയും എല്ലാ കൂടുതലായിട്ടു പ്രാ പുകഴ്ത്തുകയും അവർക്കു വേണ്ട നിർദ്ദേശങ്ങളുമൊക്കെ അതിൽ കൊടുക്കാറുണ്ട് കൂടാതെ മനോരമയെ സംബന്ധിച്ചിടത്തോളം മനോരമ ദോഷമൊന്നുമില്ല എങ്കിലും കൂടുതൽ പ്രാദേശികമായ ന്യൂസുകൾ കൂടുതലാണ് മനോരമയിലാണു വരുന്നത് അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം കൂടുതലെന്നു പറഞ്ഞാൽ നമുക്കു മതപരമായൊരു കാര്യങ്ങൾ കൂടുതൽ ദീപികേല് ദീപികയിലുണ്ട് പ്രാദേശികമായ മറ്റു വിഷയങ്ങൾ കൂടുതലായും മനോരമയിലുണ്ട് എന്നുള്ളതു മാത്രം വ്യത്യാസമുള്ളത്